ശരിക്ക് നമ്മുടെ തലമുറയാണ് കഴിഞ്ഞിട്ട് ഇനി വരുന്ന യുവതലമുറ ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വാർത്തകളിലേക്ക് കൂടുതൽ പ്രാധാന്യമോ അങ്ങനെയൊന്നും അവർ കൊടുക്കുന്നില്ല അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവർക്ക് പൊതുവായിട്ടുള്ള അറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കടയിൽ പോയാൽ എന്ത് ചെയ്യണം എങ്ങനെയാണ് അവർ ജീവിക്കുക അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മുടെ ഈ ആൾക്കാരെ അറിയില്ല അതായത് നമ്മുടെ ഈ കുട്ടികൾക്ക് അറിയില്ല അവർ ഇന്ന് അവർക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എങ്ങനെയെങ്കിലും കളിച്ചു ചിരിച്ചു നടക്കണം കുറച്ച് എൻജോയ്മെൻറ് മൂഡിൽ നടക്കണം അങ്ങനത്തെ ഒരു തലമുറയാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ നമ്മൾ തീർച്ചയായും വാർത്തകൾ കാണാനും അത് കണ്ട് പഠിച്ച് അതായത് അതിലെന്താണ് വരുന്നത് അത് അറിയുവാനുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്ക് അവരെ വളർത്തണം ആ ഒരു രീതി അവരിൽ വളർത്തണം അത് എന്നാലേ അവർക്ക് പുതിയ കാലത്ത് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ പണ്ടുള്ള ആൾക്കാരെ പോലെ അവർക്ക് നാട്ടറിവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പൊതുവായിട്ടുള്ള അറിവ് കിട്ടണമെങ്കിൽ തന്നെ ഈ ഇങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ അവർക്ക് കാണണം എന്നാലേ അവർക്ക് പൊതുവായിട്ടുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു വിവരം അവർക്ക് അറിയാൻ പറ്റുകയുള്ളൂ